ഹലോ ഇത് നോൽഫ്രണ്ട്സ് ആണോ മ്യൂസിക് പഠിപ്പിക്കുന്ന സാറാണോ ആ അതയല്ലേ അപ്പം എൻ്റെ മോളെ ഇന്ന് മ്യൂസിക് പഠിപ്പിക്കാൻ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പം ഫ്രണ്ട് തന്ന നമ്പറാണ് അപ്പം ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അന്വേഷിക്കാനായിട്ടായിരുന്നു ഡീറ്റെയിൽസ് അപ്പം എന്തൊക്കെ മ്യൂസിക്ക് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അപ്പം അതിന് എങ്ങനെ സെപ്പറേറ്റ് ആൾക്കാരാണോ അതോ സാറ് മാത്രം ആണോ അതെയല്ലേ ആ അപ്പം മകൾക്ക് അത്യാവശ്യം പാട്ടുപാടാനൊക്കെ അറിയാവുന്നതാണ് നിങ്ങളൊന്ന് പഠിപ്പിച്ചാൽമതി അവളെ അവൾക്കിങ്ങനെ ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഈ പാട്ടിനോടൊക്കെയേ പാട്ടുപാടാനും ആ സ്കൂളിലൊക്കെ പാടി പ്രൈസൊക്കെ മേടിച്ചിട്ടുള്ളതാണ് അതെയല്ലേ അപ്പം ഇതിൻ്റെ ഫീസ് എങ്ങനെയാണ്

മ് അതാണ് എൻ്റെ അവളുടെ ഒരു കൂട്ടുകാരികൾ ഒരു മൂന്ന് പേരുണ്ട് അപ്പം എമൗണ്ടിന് ഒരു ചേഞ്ച് കാണുമോ ഒരു ഡിസ്ക്കൗണ്ട് പോലെ എന്തെങ്കിലും ആ

ആ മൂന്നുപേരും ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചാണ് വരുന്നത് അവർ ഇപ്പം ഒരു ഡിസ്ക്കൗണ്ട് തന്നാൽ നല്ലതായിരുന്നു അതൊന്ന് നോക്കു ആ ആ മ് അതെ ആ ആ ഇപ്പം എത്ര സ്റ്റുഡൻ്റ്സ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് അതെയല്ലേ ആഹാ അപ്പം നിങ്ങളുടെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണെന്ന് ഒന്ന് പറയാമോ പള്ളിയുടെ അടുത്ത് അല്ലെ അതെയല്ലേ ആ ഓക്കേ അപ്പം ആ കാഞ്ഞിരപള്ളി അവിടെ സെൻ്റ് തോമസിൻ്റെ അവിടെയാണ് പഠിക്കുന്നത് പിള്ളേർ ആ നടന്നു വരാം ആ അപ്പം ആ അപ്പം ഈ നിങ്ങൾ ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയായിരുന്നു അവരുടെ ക്ലാസ്സ് ഒരു മൂന്നരയൊക്കെ ആവുമ്പോഴാണ് തീരുന്നത് അതെയല്ലേ ആ അപ്പോൾ ആ ആ അതെയല്ലേ അപ്പം എങ്ങനെയാണ് മന്ത്ലി അപ്പം ദിവസം വച്ചാണോ ഇതു വരുന്നത് ഇപ്പം ഇട ദിവസം മാത്രം വന്നാലോ അല്ലേ എല്ലാ ദിവസവും വന്നാൽ അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണ്

മ് മ് ആ പിന്നെ പിന്നെ എന്താ ഇതിൻ്റെ നിങ്ങളുടെ ഫീസ് എങ്ങനെയാണ് ഫീസ് അഡ്വാൻസ് ആയിട്ട് വല്ലതും അടക്കണോ അപ്പം മ് മ് ആ അടുത്ത മാസം തൊട്ടാണ് ഈ മാസം കുറച്ച് തിരക്കൊക്കെയാണ് അപ്പം അടുത്ത മാസം ആദ്യത്തെ വീക്ക് തൊട്ട് നോക്കാം

അതെയല്ലേ ഫ്ലോട്ട് ഒക്കെ ഉണ്ടല്ലോ മ് മ് ആ പിന്നെ ഞാൻ ഓർക്കുന്നത് അവളുടെ അവളുടെ മ്യൂസിക് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം എല്ലാ പാട്ടും അത്യാവിശ്യം പാടുന്നതു തന്നെയാണ് അത് നിങ്ങൾ നോക്കിയിട്ട് വെസ്റ്റേൺ ആണോ എന്താണെന്നു വെച്ചാൽ അത് നിങ്ങളൊന്ന് എല്ലാം ഒന്ന് പാടിപ്പിച്ച് നോക്ക് ആ ആ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഈ ഇൻസ്ട്രുമെൻ്റ്സ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഈ മ്യൂസിക്കൽ അതെയല്ലേ അപ്പോൾ അത് പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ അല്ലാതെ

മ് മ് എന്നാൽ അതൊന്ന് ചെയ്യിപ്പിച്ചു നോക്കിയിട്ട് അത് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാൽ അങ്ങനെ നോക്കാം അപ്പം എന്നാൽ ഇത് നോക്കിയിട്ടെ ഞാൻ ആ അടുത്ത വീക്കൊന്ന് വിളിക്കാം ഒന്ന് കൺഫോം ചെയ്യാനെ മ് ശെരിയെന്നാൽ ഓക്കെ